കേരളത്തിൻ്റെ കലയും അതുപോലെ കരകൗശലവുമെങ്ങനെയാണ് സംസ്ഥാനത്തിന്റേയും സംസ്കാരത്തിന്റേയും മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ അതിന്റേതായിട്ടുള്ള സംസ്കാരമുണ്ട് ആ സംസ്കാരത്തേയും അതിന്റേതായിട്ടുള്ളൊരു മറ്റു സംസ്കാരത്തിൽ നിന്നും വേറിട്ട ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിനുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സംസ്ഥാനവും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്നു പറയുന്നത് പല അതുപോലെ ഒരേപോലെ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളും മത ആചാരങ്ങളുമുള്ള ആ അതെല്ലാം നല്ല രീതിയിൽ ഇന്നും കാത്ത് സൂക്ഷിച്ചുകൊണ്ടുപോകുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്നു പറയുന്നത് അപ്പം ഓരോ മതത്തിനിപ്പോൾ ഹിന്ദുമതമായിക്കഴിഞ്ഞാൽ അതിന് അതിന്റേതായിട്ടുള്ള എന്താ പറയുക നാമം ജപിക്കുകയെന്നൊക്കെ പറയുന്ന അതൊരു രീതിയിൽ പോകുന്നതാണ് ഒരു തരത്തിൽ അതും ഒരു കലയാണെന്ന് പറയാം കൃത്യമായ രീതിയിൽ അത് ജപിച്ചു കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലത് പാരായണം ചെയ്യുന്നതൊരു കലയാണെന്ന് പറയാം അതുപോലെ ഹിന്ദു മുസ്ലിമിതിൽ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പന കളിക്കുന്നത് മാപ്പിളപ്പാട്ട് പാടുന്നത് അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ക്രിസ്ത്യനിലും അതേപോലെ എന്താ പറയുക മാർഗംകളി അങ്ങനെയങ്ങനെ പല പല വിധത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലും അവരുടേതായിട്ടുള്ള സംസ്കാരത്തിലൂന്നി നിൽക്കുന്ന കലയും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളവർ ചെയ്ത് വരുന്നു ഇതൊന്നും കൂടാണ്ട് നമ്മൾ കേരളത്തിന്റേതു മാത്രമായിട്ട് കേരളത്തിൻ്റെ തനതായ കലകളും വരുത്തുന്നുണ്ടിപ്പോൾ തിരുവാതിരയെന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ കലയാണ് അതൊന്നു അതൊക്കെയെന്നു പറയുമ്പോൾ ഈ ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ ഒപ്പനയായാലും തിരുവാതിരയായാലും മാർഗംകളിയായാലും മാപ്പിളപ്പാട്ട് അങ്ങനെ എല്ലാം തന്നെ നമ്മൾ കേരളത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നമ്മുടെ സംസ്കാരത്തിനെ മൂല്യത്തിനേയും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യത്തെ ഉയർത്തി കാണിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കലകളും അതിന്റേതായിട്ടുള്ള ഐക്യം കാണിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഹിന്ദു മുസ്ലിം അങ്ങനെ ഏത് വിഭാഗ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടേതായാലും അവർക്കിടയിലുള്ള ഐക്യവും അവർക്കിടയിലുള്ള ഒരുമയും ഒന്നിച്ച് കാണിക്കുന്ന ഒരു ഒരു സംഭവം കൂടിയാണ് നമ്മുടെ കല എന്താ കലയുമെന്ന് പറയുന്നത് അതുപോലെ കരകൗശലത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും പല കരകൗശലങ്ങളും നമ്മുടെ സംസ്കാരത്തിലൂന്നി നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഇപ്പോൾത്തന്നെ ഒരുപാട് പ്രതിമകൾ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സംസ്കാരത്തെയും നാദിൻ നമ്മുടെ സംസ്കാരത്തിന് എന്നുവെച്ചാൽ ഒരുപാട് കഥകളുണ്ടല്ലോ നമ്മൾക്ക് ആ കഥകളെയെല്ലാം അങ്ങ് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് പല തരത്തിലുമുള്ള കരകൗശലങ്ങൾ നമ്മൾ ചെയ്തുവെക്കാറ് അതുപോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും വേറിട്ട ഒരു രീതിയാണ് നമ്മുടെ കലയ്ക്കും കരകൗശലങ്ങൾക്കുമുള്ളത് അതിന്റേതായിട്ടുള്ള ഒരുമയും ഐക്യവും നമ്മുടെ നാടിന് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രകത്ഭരായിട്ടുള്ള കരകൗശല വിദഗ്ദ്ധരും അതുപോലെ ഒരുപാട് അസാധാരണ കഴിവുകളുള്ള മനുഷ്യരും അതിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതിലൊരുപാട് വിദഗ്ദ്ധമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം കയർ നെയ്യുന്നത് അതൊരു കലയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിലൊരുപാട് വിദഗ്ദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയ്ക്ക് അത് കൃത്യമായിട്ട് ചെയ്ത് വെക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് ഇന്നൊരുപാട് കയറിൻ്റെ മേഘലയൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പംപോലുമിന്നുമൊരുപാട് നല്ല രീതിയിൽ ഇന്നും കയറിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ കയർ ചകിരി തുടങ്ങിയ സാധനങ്ങൾ വച്ചിട്ട് ഒരുപാട് കരകൗശലങ്ങളുണ്ടാക്കുന്നതും ഇന്നും നല്ല വിലയ്ക്ക് വിറ്റു പോകുന്ന ഒത്തിരി സാധനങ്ങളും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സംസ്കാരത്തെ ഉയർത്തി കാണുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് പുറംരാജ്യങ്ങളിൽ നിന്നുപോലും നമ്മുടെ നാട്ടിൽ ആൾക്കാർ വന്ന് നമ്മുടെ കരകൗശലങ്ങൾ നമ്മൾ പറയുന്ന വിലയ്ക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ വരെയുണ്ട് ആ അപ്പം അതൊക്കെ വച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് സംസ്ഥാനത്തുനിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേതെന്നും കേരളത്തിന് അതിന്റേതായിട്ടുള്ള കലയും കരകൗശലവും അതിന്റേതായിട്ടുള്ളൊരു സംസ്കാരത്തിൽ മൂല്യങ്ങളും ഊന്നി നിൽക്കുന്നുവെന്നും നമുക്ക് പറയാൻ പറ്റും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അസാധാരണ കഴിവുകളുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അവരെ അവരുടെ കഴിവുകളിൽ അവരുടെ മേഘലകളിൽ നല്ല രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഒത്തിരിപ്പേരാ പ്രോത്സാഹനത്തിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടേയും കൂടെയൊരു സഹായത്തോടുകൂടി സഹായം അല്ലെങ്കിൽ പ്രോത്സാഹനത്തോടുകൂടി ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ വളർന്ന് വന്ന് ഇന്ന് സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ ഏറ്റവും ഉയർന്ന് നിന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും അഭിമാനമായ രീതിയിൽ നിൽക്കുന്നവരുമുണ്ട് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുമുണ്ട് അപ്പ അതൊക്കെക്കൊണ്ട് തന്നെ ഞാൻ എന്താ പറയേണ്ടത് നമുക്ക് ഈ പറയുന്ന കലയും അതുപോലെ കരകൗശലമെന്നും പറയുന്നത് സംസ്കാരത്തിന്റേയും മൂല്യങ്ങളിലും അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി അതിനെല്ലാം ഉറച്ച് ഇതായിട്ട് നിൽക്കുന്നുവെന്ന് പറയാം മൂല്യത്തിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറയാം